നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് എന്താ ഈ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളൊക്കെയുണ്ട് പക്ഷെ നമ്മളയീ നമ്മള നാടിൻറ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോലും മിക്കവരും പോയിട്ടുണ്ടാകില്ല പണ്ടത്തെ കാലത്ത് അപേക്ഷിച്ച് ഇപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട് ഇപ്പം തന്നെ ഈ യാത്രയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരിക്കും നമ്മുടെ അടുത്തുള്ള പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വരെ നമ്മൾ കാണുക തന്നെ ചെയ്യുക പണ്ട് എന്നു വെച്ചാൽ അങ്ങനെ ആരും അതായത് സ്ഥലം കാണാൻ പോകാം അങ്ങനൊരു യാത്ര പോകാം എന്നും പറഞ്ഞ് ആരും തന്നെ അങ്ങനൊരു പ്ലാനേ ചെയ്യാറില്ല എന്തെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ മാത്രമാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വഴിക്ക് പോവുകയുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ കാലങ്ങൾ മാറി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു ട്രിപ്പ് പോകാം എന്ന് തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതു തന്നെയല്ല ഇപ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ ആണെങ്കിലും കുട്ടികളെ വിനോദ സഞ്ചാരങ്ങൾക്ക് കൊണ്ടു പോകുന്ന വിനോദയാത്രയെല്ലാം കൊണ്ടു പോകുന്നതുണ്ട് പക്ഷെ പണ്ടെന്നുവെച്ചാൽ പല ഫാമിലീസിനും അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് കുട്ടികളെയൊന്നും വിടുന്നവരില്ല ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എല്ലാവരെയും തന്നെ സ്കൂളുകളിൽ നിന്ന് വിനോദ സഞ്ചാരത്തിനൊക്കെ വിനോദയാത്രക്കൊക്കെ പോകുമ്പോൾ കുട്ടികളെയെല്ലാം വിടുന്നവരുണ്ട് അതുതന്നെയല്ലേ ഇപ്പം സംഘങ്ങൾ കുടുംബശ്രീകൾ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ട്രിപ്പ് പോകുന്നുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം അപ്പം ഇപ്പം എന്ത് കാണാനുണ്ടെങ്കിലും നമ്മൾ നമ്മുടേതായ ഒരു തീരുമാനത്തിൽ നമ്മൾ അത് പോകുകയും കാണുകയും സന്തോഷിക്കുകയും തന്നെ ചെയ്യണം